ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് നാല് ആറ് രണ്ടായിരത്തി പതിനെട്ട് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ച് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒൻപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച്